കല്യാണ പരുപാടിക്ക് വേണ്ടിയിട്ടാണ് ഒരു ആയിരം പേർക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടാണ് അത് വയനാട്ടിൽ നിന്നാണ് എന്തൊക്കെയാണ് വേണ്ടത് പച്ചക്കറി ആണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിട്ടുള്ള പച്ചക്കറികളും അത് ഒരാഴ്ച്ചക്ക് ഉള്ളില് വേണം അത് ഇതിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് അതും അറിയണം വേണ്ടത് ഇപ്പോൾ അരി വേണം പിന്നെ പച്ചക്കറികൾ എല്ലാം വേണം അത് ഇപ്പോൾ പരിപ്പ് വേണം പിന്നെ ചേന മുരിങ്ങക്കായ വേണം ഏത്തക്ക വേണം പിന്നെ വലിയ ഉള്ളി വേണം ചെറിയ ഉള്ളി വേണം പിന്നെ ചെറിയ ഉള്ളി വേണം വെളുത്തുള്ളി വേണം അ പിന്നെ വെണ്ടയ്ക്ക തക്കാളി വേണം വെള്ളരി പറഞ്ഞു കുമ്പളങ്ങ വേണം പപ്പടം വേണം ഇത് ആയിരം പേർക്കാണ് അ അപ്പോൾ ഏകദേശം ആയിരം പേർക്ക് എത്ര വെച്ച് വേണ്ടി വരും എന്ന് അതിൻ്റെ റേറ്റ് ഇതെല്ലാം ഒന്ന് പറയണം

അതെ ഒരാഴ്ച്ചക്കുള്ളിൽ